ആ ഹലോ നമസ്കാരം ആരായിരുന്നു

ആ ഏതൊക്കെ ഫ്രൂട്ട്സാണ് വേണ്ടത് ഏതൊക്കെ ഫ്രൂട്ട്സാണ് വേണ്ടത് ആ പൈനാപ്പിൾ ഉണ്ട് എല്ലാം ഉണ്ട് ഏകദേശം എല്ലാം ഉണ്ട് ഇവിടെ ആ ആ പൈനാപ്പിളിനിപ്പോൾ കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ വരും

കുറച്ചധികമാണ് നിങ്ങൾ കുറേ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഏകദേശം എത്ര കിലോ ആ ആപ്പിളിനിപ്പം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കുറച്ച് റേറ്റ് ഉണ്ട് വേനൽക്കാലമൊക്കെയായതു കൊണ്ട് അങ്ങനെ വില കൂടി കുറച്ച്

ഹോൾ സെയിൽ ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഒരു നാല് കിലോ എടുക്കുകയാണെ ഇപ്പോൾ നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്കൊരു തൊണ്ണൂറ് രൂപയ്ക്ക് തരാം ഞങ്ങൾ ഹോൾ സെയിൽ ആയിട്ട് ആപ്പിളിന് ഇരുന്നൂറ് രൂപയാണെങ്കിലും എപ്പോഴത്തേക്കാണ് വേണ്ടത് ഡെലിവറി എപ്പോഴത്തേക്കാണ് ആ അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു എത്ര മണിക്ക് എത്തിക്കണം ഒരു ഏഴു മണി ആകുമ്പോൾ എത്തിച്ചാൽ മതിയാകുമോ ആ അല്ലെങ്കിൽ വൈകുന്നേരം എത്തിക്കാൻ പറ്റുമോ നോക്കാം മാക്സിമം

ആ ആയിക്കോട്ടെ ആ ഞാനത് കണക്ക് കൂട്ടിയിട്ട് വാട്ട്സപ്പിൽ അയക്കാം എന്നിട്ട് ചെയ്താൽ മതി നിങ്ങൾ ആ താങ്ക് യൂ ഓ